നമ്മളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആദായം ഉണ്ടാക്കുന്ന ഒരു കൃഷി രീതിയെന്ന് പറയുന്നത് നെല്ലാണ് നെല്ലും തെങ്ങും അവ ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ആദായം ഉണ്ടാകുന്ന വിളകൾ എന്ന് പറയുന്നത് നെൽകൃഷിയിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെങ്ങ് തെങ്ങിലൂടെ നമുക്ക് തേങ്ങയുടെ ലഭ്യതയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ലഭ്യതയും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഈ രണ്ട് കൃഷി രീതികളുമാണ് നമ്മളുടെ പ്രദേശത്ത് കൂടുതൽ ആദായമുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടു പോകുന്നത് നെല്ല് കർഷകരാണ് ഏറെയും നമ്മളുടെ പ്രദേശത്ത് ഉള്ളത് നെല്ലിന് ഇപ്പോൾ കുറച്ച് ഒരു പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ചൊരു വില ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് പണ്ട് കാലങ്ങളിൽ നെല്ലിനൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു ആ സമയത്ത് നെല്ല് കർഷകരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ചൂടെ പുരോഗമനമുണ്ട് പക്ഷേ ഒരു കാലാവസ്ഥ വ്യതിയാനം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കർഷകർക്ക് വളരെയധികം നഷ്ടം സംഭവിക്കുന്ന ഒരു അവസ്ഥയും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ മഴക്കാല ഘട്ടമൊക്കെ വരുന്ന സമയത്ത് കർഷകർ അതിൻ്റേതായ ഒരു ഭീതിയിലാണ് ആ മഴയും വേനലും നന്നായി വലിയ കെടുതികളില്ലാത്ത രീതിയിൽ നിലനിന്ന് പോവുകയാണെങ്കിൽ നല്ല ഒരു വിള ലഭിക്കുകയും ആ ഒരു വിള മൂലം നമുക്ക് നല്ലൊരു സാമ്പത്തിക ലഭ്യത കിട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചെടുത്തോളം കാർഷിക രീതി ഉപയോഗിച്ചിട്ട് ജീവിതമാർഗ്ഗം അത് മാത്രം കൊണ്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജോലി കൂടെ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് വെച്ച് എന്ത് കർഷകരായിട്ടുള്ള ആൾക്കാർ ആൾക്കാർ നിലവിലില്ല എന്നല്ല പക്ഷേ അവർക്ക് പരിമിതികളുണ്ട് ആ പരിമിതമായ സാഹചര്യത്തിൽ അവർ കർഷകരായി നിന്ന് വിളയെടുത്ത് അത് ഷോപ്പിൽ കൊടുത്ത് അവരുടെ വരുമാന രീതി അവർ കണ്ടെത്താറുണ്ട് പക്ഷേ ബാക്കിയുള്ള ഇതിനെ ഉപേക്ഷിച്ചിട്ട് നമ്മൾക്ക് താരതമ്യേന വിള കുറവും സാമ്പത്തിക ലഭ്യത കുറവുമാണ് അതുകൊണ്ട് രണ്ടാമതായിട്ട് വേറൊരു ജോലി കണ്ടത്തേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറ ഈ ഒരു കാർഷിക വൃത്തിയിലേക്ക് വരുന്നത് കുറവാണ് അവർ അധികവും പല പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികൾ കണ്ടെത്തി ആ ഒരു മേഖലയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അവരെ ഇതിലേക്ക് ആകർഷിക്കണമെങ്കിൽ തന്നെ നമ്മളുടെ ഇന്നത്തെ വിളക്ക് ആ അതിൻ്റെ അനുയോജ്യമായ ഒരു സാമ്പത്തിക ലാഭമൊക്കെ ലഭിച്ചാൽ മാത്രമേ ഇന്നത്തെ തലമുറയെ കാർഷിക വൃത്തിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉള്ളൂ അതാണ് എൻ്റെ ഒരു അഭിപ്രായം